ഈ പത്രത്തില് വരുന്നത് എന്ന് പറയുമ്പോൾ തലേ ദിവസത്തെ ആയിരിക്കും പത്രത്തില് ഒക്കെ വര ഇപ്പോൾ ഇന്ന് നടന്ന ഒരു ഇന്ന് നടന്ന രാവിലെ ആറു മണി തൊട്ട് അല്ലെങ്കിൽ രാത്രി തൊട്ട് നടക്കണ കാര്യങ്ങള് ഇന്ന് വൈകുന്നേരം വരെ പുലർച്ച തൊട്ട് ഇന്ന് വൈകുന്നേരം വരെ ഉള്ള കാര്യങ്ങൾ ആണ്

ആ പത്ര ആണ് അച്ചടിച്ച് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് രാവിലെ മോർണിംഗ് മോർണിംഗിന് നമുക്ക് പത്രം കിട്ടുക അപ്പോൾ ആ ഇന്നത്തെ ഒരു ദിവസത്തെ എന്താണോ വാർത്ത വാർത്തകളും അതിൻ്റെ വിഷദംശങ്ങളും അടങ്ങിയതായിരിക്കും ഈ പത്രത്തില് ഉണ്ടാവുക അതേപോലെ തന്നെയാണ് മാസികയും മാസിക ആഴ്ചയിലും മാസത്തിലുമൊക്കെ വരുന്നതാണ് ഈ മാസിക എന്ന് പറയുന്നത് വാരാന്ത്യ പതിപ്പ് അതെ പോലെ മാസിക മാസങ്ങളില് ഇറങ്ങണത് ഒരു മാസത്തെ എന്ത് നടക്കുന്നു ആ കാര്യങ്ങൾ അടങ്ങുന്നതാണ് മാസിക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആണ് വാരാന്ധ്യം ഒരു ആഴ്ചയിലെ കാര്യങ്ങൾ അടങ്ങിയതാണ് വാരാന്ധ്യം പക്ഷെ നമ്മുടെ ന്യൂസ് മീഡിയ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണോ നടക്കണത് അതാണ് നമുക്ക് കാണാൻ പറ്റുക ഇപ്പോൾ ടിവി ഒക്കെ വെച്ച് ന്യൂസ് ഒക്കെ വെച്ച് നോക്കുമ്പോ അറ്റ് എ ടൈം ഈ നേരത്ത് ഇപ്പോൾ നടക്കണ കാര്യങ്ങള് നമുക്ക് അതില് കാണാൻ പറ്റും അത് എന്ത് ന്യൂസ് ആണെങ്കിലും അത് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് അതിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടികൊണ്ട് ഇരിക്കും പക്ഷെ ഒരു ദിവസം ലേറ്റ് ആയിട്ട് ആയിരിക്കും നമുക്ക് പത്രത്തില് ഈ കാര്യം ഇന്നത്തെ കാര്യം നമ്മള് ന്യൂസില് കണ്ടത് പിറ്റേ ദിവസം ആയിരിക്കും നമുക്ക് പത്രത്തില് അത് വായിക്കാൻ പറ്റുക അതേപോലെ പത്രത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റില്ല അച്ചടിച്ച് ഇറക്കി കഴിഞ്ഞാൽ അത് പിന്നെ തിരുത്തല് അസാധ്യമാണ് സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത് ഒരു ബുദ്ധിമുട്ട് ആണ് പക്ഷെ ദൃശ്യമാധ്യമങ്ങളിൽ അങ്ങനെ അല്ല എന്തെങ്കിലും പെട്ടെന്ന് ഒരു തെറ്റ് കണ്ട ഉടനെ അപ്പൊ തന്നെ നമുക്ക് തിരുത്താൻ പറ്റുമായിരിക്കും അവർക്ക് തന്നെ തിരുത്താം ലൈവ് പോക്കൊണ്ട് ഇരികുവാണെങ്കിൽ തന്നെ തിരുത്താൻ പറ്റുന്നുണ്ട് നമുക്ക് ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കുടുതലും വിശ്വാസം ഒരേപോലെ തന്നെ ആണ് പക്ഷെ ഒന്നുകൂടി നമുക്ക് ആക്റ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഒക്കെ അറിയണത് പെട്ടെന്ന് അറിയണത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ആണ് കാരണം നമുക്ക് ദൃശ്യം കാണുമ്പോൾ അത് കറക്റ്റ് ആയി മനസ്സിലാവും